ചിത്രം വരച്ച് തുടങ്ങുന്നവരെന്നു പറയുന്ന നമ്മുടെ കുഞ്ഞിലെ തന്നെ കുഞ്ഞു കുട്ടികൾ അവർ വെറുതേ എന്തെങ്കിലും ഒരു അവരെ എന്തെങ്കിലൊരു എന്താ പറയുക അവരുടെ കറപുറ എന്തെങ്കിലും ഇട്ടു വെക്കുന്നത് അപ്പം അങ്ങനെ ഇട്ടു വെക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ ചിലർ ചിലരെങ്കിലും പറയും വെറുതെ എന്തിനാ അതിൽത്തെ മഷി കളയുന്നത് വെറുതെ വരച്ചെന്തിനാണ് മഷി കളയുന്നതെന്നു പറഞ്ഞ് നമ്മളെ വഴക്കു പറയും ചെറുപ്പത്തിലൊക്കെ പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവർ ആ പ്രായത്തിലത് ചെറുപ്പത്തിൽ ആ കറകുറ വരയ്ക്കുന്നതായിരിക്കാം ഒരു പക്ഷേ അവരുടെ ചിത്രം വരയിലേക്കുള്ളൊരു വഴിത്തിരിവെന്നു പറയുന്നത് അവരാ പ്രായം കഴിഞ്ഞ് കുറച്ചും കൂടി മുതിരുമ്പോൾ മറ്റുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ അല്ലെങ്കിൽ വീട് അങ്ങനെയുള്ള കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങും അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതാകുമ്പോൾ അവർ വളരെ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ അവരെ കുഞ്ഞിനാളിൽ തരുന്നവർ നിരുത്സാഹപ്പെടുത്തരുത് നമ്മൾ പരമാവധി അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക വരയ്ക്കാൻ വേണ്ടിയിട്ട് പെൻസിലുകൾ മേടിച്ചു കൊടുക്കുക ആ പേപ്പറുകൾ മേടിച്ചു കൊടുക്കുക നമ്മളെ കൊണ്ടാകുന്ന എന്തോ നമ്മളത് ചെയ്തു കൊടുക്കുക അവർക്കു വേണ്ടി അതേ പോലെ തന്നെ ചിത്രം വരെ മാത്രം നമുക്ക് ഒരുപാട് കഴിവുകൾ നമുക്ക് ഉണ്ടാകും ആ കഴിവുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ കഴിവ് എന്താണോ ചിലപ്പോൾ പാട്ടു പാടാനായിരിക്കാം ഡാൻസ് കളിക്കാനായിരിക്കാം അല്ലെങ്കിൽ വരയ്ക്കാനായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് അപ്പം അതിൽ നമ്മുടെ കഴിവെന്താണോ അതു നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ അതിനെ കൂടുതൽ കൂടുതൽ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുക നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ആ കഴിവിൽ നിന്നു പിന്തിരിപ്പിക്കാനും ഒരുപാട് പേരുണ്ടാകും നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെ ഒരുപാട് പേരുണ്ടാകും നമ്മുടെ വീടുകളിലുണ്ടാകും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകും നിന്നെക്കൊണ്ട് അതൊന്നും സാധിക്കില്ല നീ ഇതിനൊന്ന് നിൽക്കരുത് നിനക്കൊന്നും പറ്റുന്ന പണിയല്ലിത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താ പറയുക നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും അതിലൊന്നും വീഴാതെ നമുക്ക് നമുക്കെന്താണോ ശരി തന്നെ നമുക്കെന്താണോ കഴിവ് ആ കഴിവിനെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ അതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കഴിവുകൾ ഒരു പക്ഷെ നമുക്കത് മെച്ചപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്കെന്താണോ ശരി അല്ലെങ്കിൽ നമ്മുടെ കഴിവെന്താണോ പാട്ടു പാടാനാണോ ഡാൻസ് കളിക്കാനാണോ അങ്ങനെ നമ്മുടെ കഴിവെന്താണെന്നുള്ളത് നമ്മൾ തന്നെ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കുക അതു നമ്മൾ തന്നെ അതിനെ വളർത്തിയെടുക്കുക അതേ പോലെ തന്നെ കൂടെയുള്ളവരും അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനേക്കാട്ടിലും നല്ലത് അവരുടെ കൂടെ നിന്ന് അവരുടെ കഴിവിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക